പല വാർത്തകളും ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നത് കൊണ്ട് തന്നെ ആയിരുന്നത് കൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പല വാർത്തകളും ഞാൻ കേരളത്തിൽ കവർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് വളരെ ടാസ്കിംഗ് ആയിട്ടുള്ള ടാസ്ക് സോറി എൻ്റെ മനസ്സിന് ഇങ്ങനെ മായാതെ നിൽക്കുന്ന പല വർത്തകളുമുണ്ട് പല സംഭവങ്ങൾ അതിൽ ഒരു വലിയ ഇൻസിഡൻ്റ് എന്നു പറയുന്നത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് എന്ന് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പത്തിൽ തേക്കടയിൽ ഒരു ബോട്ട് ആഡൻ്റ് ഉണ്ടായി ബോട്ട് ആക്സിഡെൻ്റ് മീൻസ് തേക്കടിയിൽ ഇങ്ങനെ ടൂറിസ്റ്റുകളെ ബോട്ടിൽ ഈ തടാകം തേക്കടി തടാകം കാണിക്കാൻ പോകുന്ന ഒരു രീതി ഉണ്ട് അവിടെ അതിപ്പോഴും നടക്കുന്നുണ്ട് അന്ന് ഇതുപോലെ പല ടൈമിലാണ് ഈ ടൂറ് മീൻസ് കെ ടി ഡി സി ൻ്റെ ഇവിടെ കേരള സ്റ്റേറ്റ് കേരള കേരള സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള കെ റ്റി ഡി സി എന്നു പറയുന്ന സ്ഥാപനമാണ് ഇത് ടൂർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതിൽ രാവിലെ ഏഴ് മണി മുതൽ രണ്ട് മണിക്കൂർ വച്ചുള്ള ട്രിപ്പ് ആണ് പോകുന്നത് ആ പോകുന്ന വഴിയിൽ നമുക്ക് പലതരം മൃഗങ്ങൾ ആന കടുവ കാട്ടുപോത്ത് വേഴാമ്പൽ അങ്ങനെ പല സംഭവങ്ങളെ കാണാം പിന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ പോകുന്നത് ആ സ്ഥലത്തേക്ക് വന്നു അവരുടെ ബോട്ട് രാവിലെ അവിടെ നിന്ന് ഒന്ന് പുറപ്പെട്ടു അത് അങ്ങനെ പുറപ്പെട്ട് അത് ഈ ബോട്ട് എത്തിച്ചേരുന്നത് അവിടെ നിന്ന് കുറേ ഒരു ദൂരം പോയിട്ട് ഈ മുല്ലയപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്താണ് ആ പരിസരത്തു ചെന്നിട്ട് തിരിച്ചു പോരുകയാണ് പതിവ് ഈ തേക്കടിയിലെ വെള്ളത്തിൻ്റെ ഒരു സംഭവം എന്തെന്നു വച്ചാൽ ഭയങ്കര തണുപ്പുള്ള ഹെവി കോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മിക്കവാറും ടൈമിൽ അവിടെ തണുപ്പായിരിക്കും അങ്ങനെ അവിടെ ആ ബോട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ ബോട്ട് ആക്സിഡൻ്റ് ആകുന്നു അതായത് ആ ബോട്ടിലെ ഈ സ്രാങ്കെന്നു പറയും ഈ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ ഇപ്പം വിമാനത്തിന് പൈലറ്റും ഷിപ്പിന് പൈലറ്റും ബസ്സിന് ഡ്രൈവറ് കാറിൻ്റെ ഡ്രൈവർ എന്നൊക്കെ പറയുന്ന പോലെ സ്രാങ്ക് അയാളുടെ അയാളും അയാളുടെ സഹായികളും രണ്ട് മൂന്ന് പേരുണ്ടാവും അങ്ങനെ അവരുടെ അശ്രദ്ധ മൂലം ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയത് പമ്പ് ചെയ്തു പോകുന്നതിനുള്ള എന്തോ തടസ്സങ്ങൾ അവർക്ക് നേരിട്ടു അതായത് ബോട്ടിൻ്റെ പിന്നെ കാലഹരണം വന്ന ഒരു ബോട്ട് ആയിരുന്നു അത് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത് അതായത് അത് കണ്ടം ചെയ്യേണ്ട ഒരു ബോട്ട് ആയിരുന്നു അങ്ങനെ അവർ ആ ബോട്ട് ആ ബോട്ട് ആണ് വീണ്ടും ഉപയോഗിച്ചത് അങ്ങനെ ആ ബോട്ട് ഉപയോഗിച്ചത് മൂലമാണ് അന്ന് അത് ആ ബോട്ടിൽ പോയവർ മിക്കമാറുള്ള ആൾക്കാർ ഏതാണ്ട് പത്ത് അമ്പത് പേരോളം മരണമടഞ്ഞു അതിൽ തന്നെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവം ആ ഒരു ഇൻസിഡൻ്റിന് അത് കുട്ടികൾ മുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു അതുപോലെ മുതിർന്ന ആളുകൾ ഉണ്ടാവണായിരുന്നു അതിന് ഒരു ന്യൂ കപ്പിൾഡ് അതായത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വന്ന നോർത്ത് ഇന്ത്യൻ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു അതിൽ നോർത്ത് ഇന്ത്യൻ കപ്പിൾസിൽ ഇവർ ലവ് മാരേജ് ആയിരുന്നു ആ പെണ്ണിൻ്റെ വീട്ടിൽ എന്തോ താല്പര്യമില്ലാത്ത ഒരു വിവാഹമായിരുന്നു പക്ഷെ അവർ അത് വിളിച്ചിറക്കി കൊണ്ട് ഈ കല്യാണം കഴിച്ച ഒരു സംഭവമൊക്കെ ആയിരുന്നു അങ്ങനെ അവർ വന്നിട്ട് ഇതിൽ വരാൻ അവർ വരാൻ കാരണം ഈ ഹസ്ബൻഡ് എന്തോ ജോലി ആവശ്യമായി ബന്ധപെട്ട് അയാൾക്ക് ഒരു മീറ്റിങ്ങിന് വന്നതാണ് മീറ്റിങ്ങിന് വന്ന ശേഷം അവർ ഭാര്യ ഫ്രീ ടൈം ആയതുകൊണ്ട് ഭാര്യ അതിന് ആ ടൈമിൽ ഈ ബോട്ട് യാത്ര തെരഞ്ഞെടുക്കുകയും അങ്ങനെ തിരഞ്ഞെടുത്ത ആ പോയ സമയത്ത് ആ ബോട്ടിൽ ആ ഭാര്യ ഉണ്ടായിരുന്നു ഇയാളുടെ ഭാര്യ അങ്ങനെ കപ്പിളിലെ ഭാര്യ മരിക്കുകയും പിന്നീട് ഇതിൻ്റെ ഈ പോസ്റ്റ്മോർട്ടൊക്കെ നടന്നത് തേക്കടി ഒരു അങ്ങനെ ഭാര്യ മരിച്ചു അയാൾ ജീവിച്ചു ജീവിച്ചത് അങ്ങനെ പിന്നീട് ഞാൻ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇടയിലാണ് എനിക്ക് അതിൻ്റെ അത് ഭയങ്കര ഭീകരമായ ഒരു ഇത് ഇൻസിഡൻ്റ് കാണാൻ പറ്റിയത് അതായത് ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അതായത് വിളിച്ചിറക്കി കൊണ്ടു വന്ന സംഭവമെല്ലാം പറഞ്ഞിട്ട് തന്നെ വളരെ കുറച്ചു സമയം രണ്ടോ മൂന്നോ വീട്ടുകാരുമായിട്ടൊന്നും ഒരു റിലേഷഷിപ്പ് ഇതായിട്ട് തുടങ്ങിയിട്ട് ഉണ്ടാ യിരുന്നില്ല ഇവർ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ അവർ അങ്ങനെ അവിടെ സ്കൂളിൽ പോസ്റ്റ്മാട്ടം നടക്കുമ്പോൾ ഇയാൾ ഈ ഹസ്ബൻഡ് വളരെ നിർവികാരനായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഇൻസിണ്ടൻ്റ് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നീട് അതിന് ശേഷം വീണ്ടും നിരന്തരം ഇതുപോലെ കോതമംഗലത്ത് ടൂറിസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ പത്ത് ഇരുപത് പേര് മരിക്കാൻ ഇടയായ സംഭവം കോതമംഗലത്തും തട്ടേക്കാട് തട്ടേക്കാട് എന്നു പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇതെ ഒരു രീതിയിൽ സ്കൂൾ പിള്ളേരെ കൊണ്ട് നാലിലും അഞ്ചിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പോയ ബോട്ട് ആക്സിഡൻ്റയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അതിന് ശേഷം കോട്ടയത്ത് വൈക്കത്ത് ബോട്ട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ അങ്ങനെ ബോട്ടുവായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ കേളത്തിലുണ്ടായിട്ടുണ്ട് ഇതിനെ ഇതെല്ലാം എൻ്റെ മനസ്സിനെ വളരെ അധികം സ്പർശിച്ചു സ്വാധീനിച്ചിട്ടുണ്ട്